ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരൻ എന്ന് പറയുന്നത് യേശുദാസ് ആണ് യേശുദാസ് നല്ലവണ്ണം നല്ല നല്ല പലതരത്തിൽ ഹിറ്റ് ആയ ഗാനങ്ങൾ പാടിയൊരു സംഗീത സംവിധായകനാണ് യേശുദാസ് എന്ന് പറയുന്നത് യേശുദാസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയ ഫിലിം എന്ന് പറയുന്നത് ഉറുമിയാണ് അതിലെ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാൾ നല്ല ഒരു അദ്ദേഹം നല്ല ഒരു രീതിയിലാണ് നല്ല കേൾക്കാനും നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകനും ഇതേ ഫീൽഡിൽ തന്നെ പാട്ട് പാടുന്ന ഒരു സംവിദ സംഗീത സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ മകനും ഇഷ്ടപെടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ് നല്ല നല്ല ഇഷ്ടംപോലെ പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം നല്ല നല്ല ഇഷ്ടം പോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ധാരാളം അവാർഡുകൾ ഈ പാട്ട് പാടിയതിനു കിട്ടിയിട്ടുണ്ട്